ഹലോ അൻസർ അല്ലെ എനിക്ക് കുറച്ച് അ പിന്നെ ഫ്രഷ് ഫ്ലവറ് വേണമായിരുന്നു രണ്ടു മൂന്ന് രണ്ടു കല്യാണം വരുന്നുണ്ട് അതിനു കുറച്ച് പൂക്കള് വേണമായിരുന്നു ഏതൊക്കെയാണ് പൂക്കളാണ് ഉള്ളത് ഇവർ കളർ തീം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റെഡ് ആണ് വേണ്ടത് അതിൽ ഏതാണ് അതുണ്ടോ ഉണ്ട് അ ഒരെണ്ണത്തിന് എത്രരൂപയാവും പതിനഞ്ച് രൂപ വെച്ച് അപ്പോൾ രണ്ടുമൂന്ന് പരിപാടികളുണ്ട് മാമോദീസ കല്യാണം അങ്ങനെ അതുകാരണം കൂടുതൽ പൂവെടുത്തു കഴിഞ്ഞാൽ വില കുറച്ച് തരുവോ

അ ഹാ അപ്പോൾ രണ്ടുമൂന്ന് ദിവസത്തെ കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടിയായിരുന്നു

അ ഹാ നല്ല ഫ്ലവറ് വേണം പിന്നെ അല്ലെങ്കിൽ നല്ല ഫ്ലവറ് ആണെങ്കിലേ പിന്നെയും എനിക്ക് അടുത്ത ദിവസങ്ങളിലും എടുക്കാൻ പറ്റുകയുള്ളു അതുകാരണമാണ് അ ഹാ ഹാ മ്മ് അ അവർക്ക് ഫ്രഷ് ഫ്ലവറ് പിന്നെ റോ പിന്നെ റെഡ് കളറാണ് പറഞ്ഞിരിക്കുന്നത് അ ഹാ ഹാ അ കുറച്ച് കൂടുതലായിട്ട് അലങ്കാരം വേണം അപ്പോൾ അതിനുള്ള അ എ സ്റ്റേജ് മാത്രം പോരാ കയറിവരുന്ന വഴികളും കൂടെ പിന്നെ ഒന്ന് ഇത് അലങ്കരിക്കണം അപ്പം അതിനുള്ള ഫ്ലവർ വേണം അ ഇവിടെ വന്ന് സെറ്റ് ചെയ്ത് തരുമോ

അ അപ്പം മൊത്തം എങ്ങനെയാകും തുക അതെയല്ലേ അ ഹാ ഹാ

പിന്നെ ഇരുപത്തിയഞ്ചാം തിയതി അതിൻ്റെ അടുത്ത രണ്ടുദിവസങ്ങളിലും ആണ് കല്യാണത്തിന് പെണ്ണിൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്കുള്ള പിന്നെ മുല്ലപ്പൂവും വേണം അതും അവിടെ നിന്ന് തരികയില്ലെ എത്തിക്കാം

എത്രമുഴം വേണം എന്നുള്ളത് തലേദിവസം ഞാൻ എണ്ണമെടുത്തിട്ട് പറയാം അ അ ഒരു മുഴത്തിനു എത്രരൂപ ആകും അൻപത് രൂപ വെച്ച് അ സ്റ്റേജൊക്കെ നേരത്തെ വന്നൊന്ന് നോക്കണേ അ പൈസ അഡ്വാൻസ് വല്ലതും തരണോ അ പേയ്മെൻറ്റ് എത്ര രൂപ വേണ്ടി വരും അഞ്ഞൂറ് രൂപ ഇത് പാറത്തോട് സെൻറ്റ് ജോർജ് ചർച്ചിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് അ പാരിഷ് ഹാളിൽ ആണ് അ ഹാ മ്മ് ഹ് എന്നാൽ ശരി